ഞാനൊരു ക്രൈസ്തവ വിശ്വാസിയാണ് എൻ്റെ മതം എന്നെ പഠിപ്പിക്കുന്നത് മാനസികവും ആത്മീകവുമായ വളർച്ചയ്ക്ക് ഉതകുന്ന വിധത്തിൽ ജീവിക്കുവാനുള്ള സാഹചര്യങ്ങളിലേക്ക് എന്നെ അടുപ്പിക്കുന്ന വിധത്തിലാണ് എനിക്കൊരു പ്രശ്നം വന്നാൽ അതിൻ്റെ പരിഹാരം കണ്ടെത്തുവാൻ എൻ്റെ മതം എനിക്ക് നൽകുന്ന ജീവസ്സുറ്റ മതഗ്രന്ഥമാണ് ബൈബിൾ നമ്മുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും ഈ ബൈബിളിലൂടെ തന്നെ നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും കൂടാതെ വചനം നമുക്ക് വ്യാഖ്യാനിച്ചു തരാൻ വചനത്തെക്കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള ആത്മീയ ഗുരുക്കന്മാർ സന്യസ്ഥർ വൈദികർ ഒക്കെ നമുക്കുണ്ട് മനസ്സിന് ഏറ്റ മുറിവ് ഉണക്കുവാൻ ഏറ്റവും നല്ല ഔഷധമാണ് വിശുദ്ധ കുബസാരം മനുഷ്യൻ ബലഹീനനാണ് അവൻ്റെ ബലഹീനതയിൽ തെറ്റുകൾ സംഭവിക്കാം ആ തെറ്റിനെ തിരുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ ധന്യമാവുന്നത് പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ സീറോ മലബാർ സഭ അംഗമായ എനിക്ക് ലഭിക്കുമ്പോൾ എൻ്റെ തെറ്റിനെക്കുറിച്ച് ബോധ്യപ്പെടാനും ആ തെറ്റ് ഇനി ആവർത്തിക്കില്ല എന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അത് വൈദികനോട് ഞാനേറ്റുപറയുമ്പോൾ ദൈവത്തോട് തന്നെയാണ് ഏറ്റു പറയുന്നതെന്നുള്ള ബോധ്യം എൻ്റെ മനസ്സിനുണ്ടാവുകയും വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുവാനുള്ള ഒരു ഉൾപ്രേരണ എന്നിൽ ഉളവാകുകയും ചെയ്യുന്നു അതിലൂടെ നമ്മൾ ഒരു തെറ്റു ചെയ്താൽ നമുക്ക് മനസ്സിന് ഉണ്ടാകുന്ന അസ്വസ്ഥതയിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ഏറെ സാധിക്കുന്നുണ്ട് കൂടാതെ ഞങ്ങൾക്ക് ഞായറാഴ്ച്ച ദിവസങ്ങളിൽ മതപരമായ ക്ലാസ്സുകൾ ഉണ്ട് അവിടെ ആരോഗ്യപരമായ ക്ലാസുകളും ഞങ്ങൾക്ക് ഇടയ്ക്ക് നൽകാറുണ്ട് വ്യക്തി ശുചിത്വവും നമ്മുടെ സമീപ സ്ഥലങ്ങളിലുള്ള ശുചിത്വവും ഒക്കെ നമ്മളെ പഠിപ്പിക്കും നമ്മുടെ വീടുകളിൽ നമ്മൾ എങ്ങനെയായിരിക്കണം ഏതു രീതിയിലാണ് വൃത്തിയോടുകൂടി നമ്മുടെ പരിസരങ്ങളും നമ്മുടെ വീടും നമ്മളായിരിക്കുന്ന പ്രദേശങ്ങളൊക്കെ ആയിരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഞങ്ങൾ വരുന്ന ഈ ദേവാലയത്തിൽ നിന്നും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരുന്നുണ്ട്